ഈ ആധുനിക കാലത്ത് ഈ മലയാള ഭാഷ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയണത് ഇപ്പോൾ കൂടുതലും എല്ലാ സ്കൂളുകളിൽ ആവട്ടെ ഓഫീസുകൾ ആവട്ടെ എല്ലാവിടെയും കൂടുതൽ ഇംഗ്ലീഷ് എല്ലാവരും പ്രിഫെർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണ് അതായത് ഒരു സ്കൂളിൽ മലയാളം സംസാരിച്ചതിന് ഫൈൻ കൊടുക്കുന്ന സ്കൂളുകളാ നമ്മുടെ കേരളത്തിൽ ഉള്ളത് അതും കേരളത്തിലെ മാതൃഭാഷ ആയ മലയാളം സംസാരിക്കുന്ന കേരളത്തില് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ മലയാളം സംസാരിച്ചാൽ ഫൈൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു ചെറുക്കാന് വേണ്ടി നമ്മുടെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ മലയാളം കർശനമാക്കിയിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് വേണ്ട ഇംഗ്ലീഷിന് പകരം എല്ലാം മലയാളത്തിൽ വേണമെന്നൊരു ഒരു സിർക്കുലാർ വന്നിട്ടുണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് എങ്കിൽ പോലും ബഹു ഭൂരിപക്ഷവും മലയാള ഇപ്പോൾ ഒരു ഇംഗ്ലീഷിനാണ് കൂടുതൽ പ്രീഫെറൻസ് കൊടുക്കണത് മലയാളം ഒരു പറയാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിക്കൊണ്ട് ഇരിക്കുകയാണ്